ഞാന് നിങ്ങളുടെ വെബ്സൈറ്റില് നിന്നൊരു ഷൂസ് ഓഡര് ചെയ്തിട്ടുണ്ടാരുന്നു അപ്പോള് വെബ്സൈറ്റില് ആ ഷൂവിന് നിങ്ങള് കൊടുത്തിരുന്ന വില ആയിരത്തി ഇരുനൂറ് രൂപയാണ് അപ്പോള് ഞാനത് ഓള്റെഡി ഞാനത് ഓഡര് ചെയ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷമാണ് ഞാന് മറ്റൊരു വെബ്സൈറ്റില് അതേ ഷൂവിന്റെ അതേ കളര് കോമ്പിനേഷന് ഒരു ആയിരം രൂപയ്ക്ക് ലഭിക്കുമെന്ന് ഞാനതു കണ്ടായിരുന്നു അപ്പോള് നിങ്ങള് ഈ ഓഡര് ക്യാന്സല് ചെയ്ത് തരികയായിരുന്നു എങ്കില് എനിക്കു മറ്റു വെബ്സൈറ്റില്നിന്ന് വില കുറച്ച് എനിക്കതു വാങ്ങാന് സാധിക്കുമായിരുന്നു അപ്പോള് ദയവായിട്ട് നിങ്ങള് അതിനു വേണ്ടുന്ന നടപടികള് സ്വീകരിച്ച് ആ ഒരു പ്രോഡക്റ്റ് എനിക്കൊന്ന് കാന്സല് ചെയ്തുതരണം കാരണം വില കൂടുതലാണ് ഞാന് നോക്കിയപ്പോള് അപ്പോള് എനിക്ക് നിങ്ങളത് കാന്സല് ചെയ്തു തരുവായിരുന്നെങ്കില് എനിക്ക് മറ്റൊരു വെബ്സൈറ്റില് നിന്ന് സെയിം പ്രോഡക്റ്റ് തന്നെ വിലകുറച്ചെനിക്ക് വാങ്ങിക്കാമായിരുന്നു അപ്പോള് അതിന് വേണ്ടുന്ന നടപടികള് സ്വീകരിച്ച് ദയവായിട്ട് എനിക്ക് ആ ഒരു പ്രോഡക്റ്റ് ഒന്ന് കാന്സല് ചെയ്തു തരിക